സർക്കാർ പദ്ധതികളിൽ ഹെൽത്ത് ഇൻഷൂറൻസ്സ് ഹെൽത്ത് കാർഡ് അത് പോലെ തന്നെ കോവിഡ്ല് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട വ്യക്തികൾക്ക് ധന സഹായമായിട്ട് ഒരു അമ്പതിനായിരം രൂപ നമ്മൾ ഗവണ്മെൻ്റ് അംഗീകരിച്ചിട്ടുള്ളത് വില്ലേജ് ഓഫീസർ മുഖേനെ സാക്ഷിപത്രം ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് അക്ഷയ വഴിയാണ് അത് കൊടുക്കേണ്ടത് അത് പോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് അത് അക്ഷയ വഴി ഓൺലൈനായിട്ട് വേണം ചെയ്യാൻ അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ഓരോ വ്യക്തികളും അഡ്മിറ്റ് ആവുന്ന ഗവണ്മെൻ്റ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയതിന് ശേഷം ഹോസ്പിറ്റൽ ഡിപ്പാർട്മെൻ്റ് നേരിട്ടാണ് ഇൻഷുറൻസ് കാഡ് നേരിട്ട് എടുത്ത് കൊടുക്കുന്നത് മുൻപ് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അത് അക്ഷയ വഴിയാണ് അത് പുതുക്കി കൊണ്ട് വരേണ്ടത് അത് പോലെ ഗെവണ്മെൻടിൻ്റെ ഒരു പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കാൻസർ ബാധിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്ക് സാന്ത്വന സ്പർശം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമാണ് അത് അക്ഷയ വഴി തന്നെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് നമുക്ക് ഫോണ് വഴിയും അപേക്ഷിക്കാം ഫോണിലെ ഓൺലൈനായിട്ട് അറിയാവുന്ന വ്യക്തികൾക്ക് ഇത് നേരിട്ട് ചെയ്യാവുന്നതാണ് ഇത് പോലെ തന്നെ ഹെൽത്ത് കാർഡ് നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെ സർക്കാറിൻ്റെ ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാറിൻ്റെ ഒരു പദ്ധതിയാണ് ഹെൽത്ത് കാർഡ് നമുക്ക് അസുഖം ആയിട്ട് അഡ്മിറ്റ് ആവുന്ന ദിവസം തൊട്ടുള്ള അഞ്ച് ലക്ഷം വരെയുള്ള നമ്മളെ എല്ലാവിധ ചിലവുകളും ഗെവണ്മെൻ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് തരുന്ന ഒരു സ്കീമാണ് ഹെൽത്ത് കാർഡ് അത്പോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് ഗെവണ്മെൻ്റ് ഹോസ്പിറ്റലുകളിൽ മാത്രം അംഗീകൃതമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂസ്സ് വന്ന് കഴിഞ്ഞാലും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈസ പോലും കൈയിൽ നിന്ന് ചിലവാകാതെ ഗെവണ്മെൻ്റ് എല്ലാ വിധ സഹായങ്ങളും ഗെവണ്മെൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് തരുന്ന ഒരു സ്കീമാണ് ആരോഗ്യ ഇൻഷുറൻസ്